ഹലോ ആരാണ് വിളിക്കുന്നത് അതേല്ലോ ആരാണ് വിളിക്കുന്നത് ഹലോ ആരാണ് ആ ആറാങ്ക്ളാസി പഠിക്കുന്ന കുട്ടി നാലാങ്ക്ളാസി പഠിക്കുന്ന സോഫിയ ആ ഓക്കെ ഓക്കെ സോഫിയേന്നെ ആ ആ ആ സാറെ നാല് ദിവസത്തെ അവധീന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കവധിയുള്ള ദിവസം ടൂറ് പോകാമല്ലോ അല്ല സാറേ ഇപ്പം ക്രിസ്മസിൻ്റെ ഒക്കെ അവധിയല്ലേ അല്ല സാറേ ക്രിസ്മസവധി ഒക്കെ വരുന്നുണ്ടല്ലോ ആ സമയത്ത് നിങ്ങൾക്ക് ടൂറ് പോകാമല്ലോ തടസ്സമില്ല പക്ഷേ ഇപ്പം നാല് ദിവസം കൊച്ചിനെ സ്കൂളീന്ന് ഇറക്കുകാന്നു പറഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ എന്നാലും ക്ലാസീന്ന് കിട്ടുന്ന പോലെ കിട്ടുമോ സാറേ അല്ല സാറേ ക്ലാസ്സീന്നേ ക്ലാസ്സി കൊച്ച് പഠിക്കുന്ന കണക്ക് ക്ലാസി ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന കണക്ക് അവൾ നോട്ടെഴ്തിയാൽ കിട്ടുമോ അത്രേം നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയല്ലേ അപ്പം അവക്കേറ്റോം നല്ലതായിട്ട് ബേയ്സ്സ് വേണ്ടേ അപ്പം ഈ നാല് ദിവസം പറഞ്ഞ് കഴിഞ്ഞാൽ വലിയ നഷ്ടമാണ് അ അങ്ങനൊക്കെ പാ ശരിയാണ് സാറേ പക്ഷേ കൊച്ചിൻ്റെ ഭാവിയും കൂടെ നമ്മൾ മുന്നിലൊന്ന് കാണണമല്ലോ അത് നാല് ദിവസം കൊച്ചിൻ്റെ ക്ലാസ്സ് മിസ്സ് ചെയ്ത് പോവാന്ന് പറഞ്ഞാൽ ഞാൻ സ്വന്തം റിസ്ക്കിപ്പോവാം ഞാനത് പറയുന്നില്ല നിങ്ങളുടെ ഫ്രീഡമാണ് കൊച്ചിനെ കൊണ്ടുപോവാന്നുള്ളത് നിങ്ങളുടെ തന്നെ റിസ്ക്കിപ്പോവുകാ പിന്നെ നോട്ട്കൾ കൃത്യമായിട്ട് ക്ലാസദ്ധ്യാപികയെ ക്ലാസ്സിൻ്റെ ചാർജുള്ള ക്ലാസ് അതേത് ടീച്ചർൻ്റെ ക്ലാസ്സാണ് എ ഏത് ഡിവിഷന് ഏത് ഡിവിഷൻലാണ് കുട്ടി പഠിക്കുന്നത് ഏത് ഡിവിഷൻലാണ് ഏത് ഡിവിഷൻലാണ് ഏത് ഡിവിഷൻ ആറാം ക്ലാസിലെ ഏത് ഡിവി ബീ ഡിവിഷൻലോ ഓക്കെ ഓക്കെ ഓക്കേ ഞാൻ ടീച്ചറായിട്ട് കോണ്ടാക്റ്റെ ചെയ്തോളാം ഞാൻ സിസ്റ്ററയിട്ട് കോണ്ടാക്റ്റെ ചെയ്തോളം ആ അപ്പം കൃത്യം ആ ഓക്കേ എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഒരു ഒരു കണ്ടീഷനൊണ്ട് കൊച്ച് കൊച്ച് ക്ലാസ് ടൂറക്കെക്കഴിഞ്ഞ് തിരിച്ച് വരുമ്പം ഈ പഠിപ്പിച്ച എല്ലാ പോഷനൂടെ കവർ ചെയ്തൊരു എക്സാം അവൾക്ക് വേണ്ടിട്ട് പ്രത്യേകം പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും അത് മൊത്തം അവൾ അറ്റെന്റ് ചെയ്യണം ആ ശരി സാറേ എന്നാൽ ഓൾ ദ ബെസ്റ്റ്